കോളേജിൽ ഡിഗ്രിയുള്ളവരെ എല്ലാം അറിയാം ഞാനും ഒരു ഡിഗ്രി സ്ടുടെന്റ്റ് തന്നെയാണ് ഞാനും എൻ്റെ ഡിഗ്രി കമ്പ്ലീറ്റാക്കീട്ടാണ് ഉള്ളത് നമ്മൾ സ്വയം മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളായി മുൻഗണന എടുത്ത് നല്ല പരീശീലനത്തോട് കൂടിയും കൃത്യനിഷ്ടതയോടു കൂടിയും എല്ലാം ചെയ്താൽ തന്നെ ഉള്ളു നമുക്ക് ജീവിതത്തിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം മുന്നേറാൻ സാധിക്കുകയുള്ളു കൂടാതെ ഏതൊരു കാര്യമായിക്കോട്ടെ അതിപ്പോ ഡിഗ്രി രംഗം ആയാലും വേറെ ഏത് കോഴ്സുകളിൽ ആണെങ്കിലും നമ്മൾക്ക് മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളുടെ കഴിവുകളും കഴിവിൻ്റെ പരാമവധിയും എല്ലാം ഉപയോഗിച്ചിട്ടും അതുപോലെത്തന്നെ എല്ലാ കാര്യത്തിനും മുന്നിൽ എറങ്ങി എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സ്വയം മുന്നേറിയെന്ന് നമുക്ക് തന്നെ തോന്നുക ഇപ്പോൾ കോളേജിലെ ഡിഗ്രി പരമായിട്ടുള്ള ഏതൊരു കാര്യത്തിനാണെങ്കിലും ഏതൊരു പരിപാടികളിൽ ആണങ്കിലും മുന്നിൽ നിന്ന് നയിച്ച് എല്ലാവരേയും ഒരുപോലെ നയിച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനു നമുക്ക് കഴിയുന്ന കഴിയും എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം മുന്നേറിയെന്ന് വിലയിരുത്താം അതുപോലെ തന്നെ പഠന കാര്യത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലും നമ്മൾ മുന്നിൽ ഇറങ്ങി ചെയ്ത് എല്ലാവരുടെയും ഇടയിൽ അവിടുത്തെ അതിലെ ഒരാളായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ സ്വയം മുന്നേറുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അത് കണ്ട് അത് മനസിലാക്കി അതിനൊരു പരിഹാരം കാണുക അല്ലെങ്കിൽ അത് പരിഹരിക്കുക അപ്പോഴൊക്കെയാണ് നമ്മൾ സ്വയം ജീവിതത്തിലും ഡിഗ്രി ലെവലിലും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാനും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ അതിൽ നല്ലൊരു തീരുമാനം എടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറുന്നത്